എനിക്ക് പഴയ എട്ട് ഒമ്പത് പത്ത് എന്ന ക്ലാസിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹം അവിടെ ഭയങ്കര എന്താണ് പറയുക സന്തോഷം നിറഞ്ഞ ക്ലാസുകളൊക്കെ ആയിരുന്നു അടിപൊളി കുറേ ഫ്രണ്ട്സുകളുമുണ്ടായിരുന്നു അടിപൊളി ടീച്ചർമാർ മാഷുമാർ അവരൊക്കെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഭയങ്കര ഇൻറ്ററസ്റ്റ് ഉള്ള അതായിരുന്നു എട്ട് ഒമ്പത് പത്ത് മനോഹരമായ സ്കൂൾ ഒക്കെ ആയിരുന്നു അവിടെ ഭയങ്കര ടീച്ചർമാർക്കും മാഷുമാർക്കും ഭയങ്കര എന്നെ ഭയങ്കര കാര്യമായിരുന്നു അവിടെ വളരെ സന്തോഷകരവും ഒക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ കുറച്ച് കുറവാണ് ഫ്രണ്ട്സുകളൊക്കെ അപ്പോൾ ഉള്ള കാലം നല്ല മനോഹരമായ കാലമായിരുന്നു